ഹലോ ഹലോ ആ ഞാൻ ഞാന് വിളിച്ച് ഉണ്ടായിരുന്നില്ലെ പണ്ട് ആ നമ്മുടെ ഹൗസ് ബോട്ട് ഒരു പഴയ വീടിൻ്റെ മോഡല് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് തറവാട് മോഡല് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതെ അതെ അതെ അതെ അതെ അതെ അത് തന്നെ അത് തന്നെ അതെ അതെ അതെ അതെ അതെ ആ ഓക്കെ അപ്പോൾ നമ്മളൊരു തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് സ്പേസ് വരിക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സജഷൻ പറയുക പിന്നെ ഒരു നില ആയിട്ട് കേറ്റ വെച്ചിട്ട് ഉണ്ട് സിംപിള് ലുക്ക് മാത്രം മതി പുറത്ത് നമ്മള് ഒരു തറവാട് കാര്യങ്ങള് സെറ്റപ്പ് ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു മോഡല് ആ ഒരു ഐ മീൻ ഒരു ഇപ്പോൾ മനസ്സിലായോ ഒര് വൃത്തി കാര്യങ്ങള് കാണണം ഫ്രണ്ടില് വരുമ്പോൾ ഉള്ളിലേക്ക് നമ്മള് ഒരു വൃത്തി കാര്യങ്ങളൊക്കെ വേണം ഒരു ഫ്രണ്ടില് കാണുമ്പോൾ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ വേണം പഴയ ട്രഡീഷണൽ ആ ഡിസൈന് പക്ഷെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഒരു മോഡേണായിട്ടുള്ള ഒരു ഈ ലുക്കിലോട്ട് മാറണം സാർ നമ്മുടെ സോഫ ഐ എൻ റ്റി അത് ലെവലിലോട്ട് മാറണം പിന്നെ പക്ഷെ എന്നാലും അതിൻ്റെ അത് അങ്ങനെ ചെയ്യുമ്പോഴും നമ്മള് അത് ട്രഡീഷണലായ കാര്യം ആ ഉള്ളില് ഇൻറ്റീരിയറില് ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം ആ രീതിയില് വേണം ചെയ്യാൻ വേണ്ടീട്ട് ഓക്കെ ആരും ഒരു ബെഡ്റൂമ് ഒരു ര രണ്ട് ബെഡ്റൂമ് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു കിച്ചൺ പിന്നെ ഡൈനിംഗ് ഹാള് പിന്നെ അല്ലേ നിങ്ങള് നമ്മള് സാധാരണ ഒരു വീടിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് നമ്മുക്കൊരു ഒരു ന ഒരു ന നടുത്തളം അങ്ങനെ മനസ്സിലായില്ലെ അതായത് നടൂവില് ഒരു തറവാട് ആ ആ ആ രീതിയിലാണെങ്കില് നല്ല അതിൻ്റെ ചുറ്റും ഒര് വരാന്തപ്പോലെ സംഭവം ഒക്കെ ആണെങ്കില് വളരെ നല്ലതാണ് അങ്ങനത്തെ ആ ഒരു രീതിയില് ആണെങ്കിൽ ഡിസൈൻ ചെയ്താൽ നന്നാവും ആ ആ ആ ഓക്കെ

ആ ഇല്ല ഓക്കെ

രണ്ടേ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ അത് കുഴപ്പമില്ല ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓ

ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അതെ അതെ അതെ ആ ആ ഒരേ ഒരേക്കറ് അത്രത്തോളം വരുന്നുണ്ട് ഇപ്പം നമ്മള് ഒര് ബാക്കി ഉള്ള സ്ഥലങ്ങളില് ചെറുതായിട്ട് ഒരു ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീടിൻ്റെ സ്ഥലം കാണാൻ ഒര് ചെറിയ ഒരു സെറ്റപ്പുള്ള വീടെന്ന് മാത്രം ആയിട്ട് ട്രഡീഷണൽ ലുക്കുള്ള ഒരു സാധാരണ വീടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുദ്ദേശിക്കുന്നത് പിന്നെ ഇൻറ്റീരിയറ് കാര്യങ്ങള് ചെയ്യുമ്പഴ് കൂടുതല് ട്രഡീഷണലില് വേണ്ട എന്നാൽ കൂടുതല് മോഡേണും വേണ്ട ഒര് മിഡില് സൈസിലോട്ട് മാറീട്ട് ചെയ്യുകയായിരിക്കും കുറച്ച് ബെറ്റർ പ്രത്യേകിച്ച് ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ മൊത്തം ബഡ്ജറ്റ് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരു വീടിൻ്റെ കാര്യത്തിന് എത്രയാണ് ഏകദേശം ബഡ്ജറ്റ് വരിക നിങ്ങളുടെ ഒര് എക്സ്പീരിയൻസ് വെച്ച് പറയാണെന്ന് ഉണ്ടെങ്കില് ആ ഇപ്പം ടോട്ടല് നമ്മളെന്തായാലും മനസ്സിൽ കണ്ട ഒരു ബഡ്ജറ്റ് ഇരുപത്തിയഞ്ചാണ് ഉം ഓക്കെ ആ രീതിയിൽ തന്നെ തീർത്ത് കിട്ടണം ആ ഓക്കെ ഓക്കെ ഓക്കെ ഉം ആ ആ ഓക്കെ ഓക്കെ അത് ശരിയല്ല അതിപ്പോൾ ഒര് വർക്കാവുമ്പോൾ അങ്ങനെത്തന്നെയാണല്ലോ പ്ലാനിംഗ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആ സാർ പ്ലാനിംഗിന് വേണ്ടി ഇപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഒര് വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് കൂടാം പിന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടത് നെക്സ്റ്റ് മന്ത് ഒരു പതിനഞ്ചാം തീയ്യതി ഒക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുവെങ്കില് അത്രയും പെട്ടെന്ന് ആവും ആ ഓക്കെ അങ്ങനെ ചെയ്യാം ആ ഉണ്ട് ഉണ്ട് അങ്ങനെയും ഉണ്ട് അപ്പം അവരെല്ലാവരെയും കൂട്ടി വന്നാൽ ഒരുമിച്ച് ഇതായി കഴിഞ്ഞാലെ അത്രയും നല്ലതാണ് ആ ലാസ്റ്റ് അന്ന് തന്നെ ഫൈനലൈസ് ചെയ്യാം ഒരുമിച്ച് വന്ന് ഫൈനലൈസ് ചെയ്യാം ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാർ